എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാന്സര് പേഷ്യൻ്റ്സ് ഹൃദയരോഗ ഇങ്ങനെയുള്ള പേഷ്യന്റ്റ്സിന് ഹൃദൃ ഹൃദ്രോഗികൾ ഇങ്ങനെയുള്ള പേഷ്യന്റ്റ്സിനൊന്നും അത്രയധികം ഫസിലിറ്റീസ് നമ്മളുടെ സ്ഥലത്തൊന്നും വന്നിട്ടില്ല നമ്മളുടെ സ്ഥലത്തൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല കാരണം ഇപ്പോൾ എന്താ പറയുക ഒരു കോഴിക്കോട് കിടക്കുന്ന ഒരു ക്യാന്സര് രോഗിക്ക് തിരുവനന്തപുരം പോയിട്ട് കീമോ ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് അതുമാത്ര എന്നാലും പണ്ടത്തതിനെ വെച്ചു നോക്കുമ്പോൾ നമ്മൾ പുരോഗമിച്ചു കുറേയൊക്കെ പുതിയ പുരോഗമനം വന്നിട്ടൊക്കെയുണ്ട് പക്ഷെ എന്നാലും എന്തെല്ലോ എന്തൊക്കെയോ ഒരു മാറ്റങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ അതിൽ ഞാന് പ്രധാനമായിട്ടും നോക്കിക്കണ്ടു വന്ന ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ക്യാഷ് ക്യാന്സര് രോഗി ക്യാന്സര് രോഗിക്ക് ഇപ്പോൾ കുറച്ചു സീരിയസ്സായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറേ ക്യാന്സര് രോഗീസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാംപിൾ എടുത്തു നോക്കുകയാണെങ്കില് ഒരു ക്യാന്സര് രോഗിക്ക് സീരിയസ്സായി നല്ല സീരിയസ്സായിട്ട് കൊണ്ടു പോകുകയാണ് അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് അധികം ബുദ്ധിമുട്ടി വരുന്ന ഒരു കുടുംബം കൂടെയാണെന്നു വിചാരിക്കുക അല്ലെങ്കില് ഒരു സാധാരണ കുടുംബം സാധാരണ രീതിയിൽ അന്നന്നു കിട്ടുന്ന ശമ്പളം കൊണ്ട് അങ്ങനെ ജീവിച്ചുപോകുന്ന അങ്ങനെയൊരു കുടുംബമാണെങ്കില്ത്തന്നെ അങ്ങനെയൊരു കുടുംബം നിന്നാണ് ഇങ്ങനെയൊരു ക്യാന്സര് രോഗിയെ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അവരാണെങ്കില് സീരിയസ്സായിട്ടുള്ള അടിയന്തരാവസ്ഥയിലും കൂടി ആണെന്നുണ്ടെങ്കിൽ പറയണ്ട അവിടെ ചെന്നാല് ഹോസ്പിറ്റലില് പോയാൽ ഒന്നുമില്ലെങ്കിൽ അവര്ക്ക് അഫോര്ഡ് ചെയ്യാന് പറ്റുന്ന റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സൗകര്യങ്ങൾ നല്ല കുറവായിരിക്കും ഇപ്പോൾ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റല്സിലൊക്കെ ക്യാന്സര് പേഷ്യന്റ്റ്സിന് കീമോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതു ഭയങ്കര എന്താ പറയുക തീരെ ഡെവലപ്ട് അല്ല തീരെ പുരോഗമനം ഇല്ലയെന്നു പറഞ്ഞാല് തീരെ പുരോഗമനില്ല നമ്മൾ എന്താപറയുക ഇന്നിപ്പം പറ പല തരത്തിലുള്ള പ്രൈവറ്റ് ആശുപത്രികളുണ്ട് ഇഷ്ടമ്മാതിരി ഉണ്ട് പ്രൈവറ്റ് ആശുപത്രികൾ പക്ഷെ നമ്മൾ പിന്നവിടെ പോയി അവിടെ നല്ല എന്താ പറയുക അമേരിക്കന് ഫെസിലിറ്റീസ് അവിടെ കിട്ടുന്ന പോലത്തെ എല്ലാത്തരത്തിലുള്ള സൗകര്യങ്ങളും എല്ലാത്തരത്തിലുള്ള മരുന്നുകളും ഇ എല്ലാ ടൈപ്പ് മരുന്നുകളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ അവർ ഒരു സാധാരണ കുടുംബത്തിന് അവിടെ പോയിട്ട് ഒരു മരുന്ന് പോലും വാങ്ങി കഴിക്കാന് പറ്റാത്ത അവസ്ഥയാകും അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു കീമോ പേഷ്യന്റ്റ്സ് കീമോ പേഷ്യന്റ്റ്സിന് എപ്പോഴും എന്തുണ്ടാകും എല്ലാ മാസവും പോയിട്ട് കീമോ ചെയ്യേണ്ടി വരും പക്ഷെ അവര്ക്കിപ്പോൾ എല്ലാ പ്രാ മാസവും പോയിട്ടൊരു ഓ എണ്പത് എണ്പതിനായിരം രൂപ അല്ലെങ്കില് അൻപതിനായിരം രൂപയുടെ മെഡിസിന് പോയിട്ട് എല്ലാ മാസവും പോയിട്ട് നടക്കുക ചെയ്യണമെന്നുള്ള അവര്ക്കതൊന്നും അഫോര്ഡ് ചെയ്യാന് പറ്റുന്നതല്ല അത് എന്തായാലും പറ്റില്ല എത്ര എന്താപറയുക ഇത്ര എന്താപറയുക ഇതൊക്കെയുണ്ടാകില്ലേ ഇവര്ക്ക് പ്രായമായ ആള്ക്കാര്ക്ക് ഉള്ള മെഡിസ്സപ്പ് പോലെയുള്ള എന്താ പറയുക ഇന്ഷുറന്സ് ഇന്ഷുറന്സ് കാര്യങ്ങൾ എന്തൊക്കെ കിട്ടിയാലും പക്ഷെ ഈ ഇന്ഷുറന്സ് വഴിയും ഈ പ്രൈവറ്റ് ആശുപത്രികൾ ഇവർ എന്താ പറയുക പൈസ എന്നാലും ഇവരെ കുറേ പറ്റിക്കപ്പെടുന്നുണ്ട് സാധാരണ ജനങ്ങൾ പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെയാണ് പ്രൈവറ്റ് ആശുപത്രിയിൽ നടക്കുക പക്ഷെ നമ്മൾ വിശ്വസിച്ചു പോകുന്ന ഗവണ്മെന്റ്റ് ആശുപത്രിയിൽ നം ഒരു കീ ഒരു അത്യാവശ്യം സീരിയസായിട്ടുള്ള അല്ലെങ്കില് ഒരു തേര്ഡ് സേ സ്റ്റേജില് എത്തിയിട്ടുള്ളൊരു ക്യാന്സര് പേഷ്യന്റ്റിനെ ചികിത്സിക്കാനുള്ള ഒരു ഫെസിലിറ്റി പോലും അവിടെ പോയിട്ട് മര്യാദയ്ക്ക് ഒന്നു ഭേദമാകാന് പോലുമുള്ള മരുന്നു പോലും അവിടെ ഇല്ല നമ്മുടെ ഗവണ്മെന്റ് ആശുപത്രികളിലില്ല അതുകൊണ്ടു തന്നെ ഇപ്പോൾ നമ്മൾ ഇത് അലോപ്പതി അല്ലാതെ നമ്മൾ ഹോമിയോപ്പതി ചികിത്സ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഹോമിയോപ്പതിയില് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയും ചികിത്സ കുറവാണ് ഇപ്പോൾ നമ്മൾ ഹൃദ്രോഗികളായാലും ഫിസിയോതെറാപ്പിസ്റ്റിനെയാണ് ഡയാലിസിസ് ചെയ്യാന് വേണ്ടിയിട്ടുള്ള കിഡ്നി പേഷ്യന്റ്സാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ ഹോസ്പിറ്റലില് കൊണ്ടു പോകുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ എല്ലാവരും കൊണ്ടു പോകുന്നത് സാധാരണ ജനങ്ങളാണെന്നുണ്ടെങ്കില് കൊണ്ടു പോകുന്നത് പ്രൈവറ്റ് ആശുപത്രികളിലാണ് പക്ഷെ അവിടെ പ്രൈവറ്റ് ആശുപത്രിയിലെന്നു പറയുന്നത് ഇവരെ പിടിച്ചു വാങ്ങുന്നവരുടെ വീട് പോലും പണയം വെച്ചിട്ടാകും അവർ ചിലപ്പോൾ പൈസ അങ്ങനെ പൈസയുണ്ടാക്കിയിട്ടാകും അവർ ചിലപ്പോൾ ചികിത്സിക്കാന് പോകുന്നുണ്ടാകുക പക്ഷെ ആശുപത്രിയിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പൈസ വേണോല്ലോ പക്ഷെ നമ്മള് സാധാരണക്കാര്ക്ക് പോവാന് പറ്റുന്നതാണ് ഗവണ്മെന്റ്റ് ആശുപത്രികള് എന്തു കൊണ്ട് ഇതേ ഫെസിലിറ്റീസ് എന്ത് നമ്മടെ ഗവണ്മെന്റ്റ് ആശുപത്രികളില് എന്തു കൊണ്ട് വരുത്തിക്കൂടാ